ഞാൻ വിശ്വസിക്കുന്ന മതം എന്നു പറയുന്നത് ഹിന്ദു മതമാണ് ഹിന്ദു മതത്തിൽ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചു പറയുന്നുണ്ട് അതായത് രാവിലെ എഴുന്നേൽക്കുക സൂര്യനമസ്കാരം ചെയ്യുക അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുകഴിഞ്ഞിട്ട് പിന്നെ യോഗയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതൊക്കെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് നല്ല ആരോഗ്യം പ്രധാനം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ നമുക്ക് നമ്മൾ യോഗയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് സമാധാനവും ലഭിക്കും ഹിന്ദു മതത്തിലാണ് ഇതിൻ്റെ പല രീതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് സൂര്യ നമസ്കാരത്തിൻ്റെ ഒക്കെ ആണേലും സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സ് ശാന്തമാവുകയും നമ്മുടെ ദേഷ്യമൊക്കെ കെട്ടടങ്ങി നമുക്ക് നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ മനസ്സിനെ ഉണർത്തും സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നതിലൂടെ അതൊക്കെ രാവിലെ എഴുന്നേറ്റു ചെയ്യണം അതൊക്കെ ആണ് പറയുന്നത് ആ നമുക്ക് സൂര്യൻ്റെ ദർശനം ഏൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തു നിന്ന് വേണം നമ്മൾ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യാനായിട്ട് അതിനൊക്കെ പ്രത്യേക രീതികളൊക്കെ നമ്മുടെ മതം പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ വളരെ നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയേക്കുന്നത് നമ്മുടെ മനസിനെ ഒക്കെ ശുദ്ധീകരിച്ച് നേരായ രീതിയിലുള്ള ചിന്തകളൊക്കെ നമുക്ക് തന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു